എൻ്റെ വീട്ടിനടുത്ത് ഒരു ഭജന ട്രൂപ്പൊന്നും ഇല്ല എന്നാൽ എൻ്റെ ഗ്രാമത്തിലൊരു ഭജന ട്രൂപ്പുണ്ട് ഒന്നല്ല ഒ ഒന്നിലധികം ഭജന ട്രൂപ്പുകളുണ്ട് അവ അവരെപ്പോൾ ഒത്ത്കൂടുക അല്ലെങ്കിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും അമ്പലങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരാഘോഷം ഇപ്പം ശിവരാത്രി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഉള്ള സമയത്ത് അവർ ഒരു സംഗീതങ്ങളുമായിട്ട് വരാറുണ്ട് ഇപ്പം നമ്മൾ പിന്നെ വിളിക്കുമ്പോൾ ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടാകുമ്പോൾ വിളിച്ചാൽ അവർ വരാ വരാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ അമൃതാ സ്കൂളുണ്ട് അപ്പോൾ അവിടെ ഒരു മു ഒരു അഞ്ചാറ് പ്രാവശ്യം കൂടുമ്പോൾ ഒക്കെ അമൃതാ സ്ഥാപകാരായ അമ്മയില്ലെ അവരൊക്കെ വരുമ്പോൾ പിന്നൊരു അവരെയൊക്കെ വിളിച്ചിട്ട് അവർ വന്ന് സ്കൂളിൽ നിന്നും അവ പിന്നെ സംഗീതങ്ങളൊക്കെ അവതരിപ്പിക്കാറുണ്ട് അതെന്ന് വെച്ചാൽ നമ്മൾ മതപരമായ അല്ലെങ്കിൽ വിശ്വാസപരമായ സംഗീതങ്ങളൊക്കെ ഒരുപാട് ആലപിക്കാറുണ്ട് അവരുപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ അവർക്ക് പിന്നെ ഓടക്കുഴലുണ്ടാകും പിയാനോ ഡ്രംസ്സ് പിന്നെ ഡ്രംസ്സുണ്ടാകില്ല പിയാനോ പിന്നതുപോലെ ആ അതുപോലെയുള്ള ഒരുപാട് സംഗീത ഉപകരണങ്ങൾ അവരുപയോഗിക്കാറുണ്ട്